എനിക്ക് ഏറ്റവും അധികം ഇഷ്ട്ടുള്ള വിഭവമെന്ന് വെച്ചാൽ ബിരിയാണിയാണ് അതില് ബിരിയാണിയില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചിക്കൻ ബിരിയാണിയാണ് അത് എനിക്ക് കഴിക്കാൻ മാത്രമല്ല അത് ഉണ്ടാക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ഉണ്ടാക്കാനും അറിയാം ഫസ്റ്റ് നമ്മൾ അരിയെല്ലാം കഴുകി വെക്കണം കഴുകി വെജിറ്റബിൾസെല്ലാം വെജിറ്റബിൾസെല്ലാം അറേഞ്ച് ചെയ്തതതെല്ലാം കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വയ്ക്കണം ആ സമയത്ത് തന്നെ നമ്മള് അരി കുതിരാൻ വയ്ക്കണം അരി കുരുന്നു കുതിർന്നതിന് ശേഷം പല തരത്തിൽ ബിരിയാണി ഉണ്ടാക്കാം പല രീതിയിലുണ്ടാക്കാം അതിപ്പം ഓരോത്തര് ഓരോ നാടിൻ്റെ തനിമ അനുസരിച്ചിരിക്കും ഫസ്റ്റ് നമ്മള് ഒനിയനെല്ലം കട്ട് ചെയ്ത് അത് ചിക്കൻ കറി ആക്കി എടുക്കണം ഫസ്റ്റ് എന്നിട്ട് നമ്മൾ അരി പകുതി വേവായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മള് ദം പോലെ ആക്കി ഒരു അര മണിക്കൂറും കൂടെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബിരിയാണി സെറ്റായിട്ട് കിട്ടും